മലയാള ഭാഷയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും പാടുള്ള ഭാഷയാണ് മലയാള ഭാഷ മലയാളം പറയാൻ ഭയങ്കര പാടാണ് അതുപോലെന്നെ നാവ് വഴങ്ങണം ഇപ്പം മലയാളം പഠിക്കുവാണെങ്കിൽ നമുക്ക് ഇന്ത്യയിലെ ഏതൊരു ഭാഷയും കൈകാര്യം ചെയ്യുന്നത് എളുപ്പമായി തീർക്കും അതുപോലെന്നെ മറ്റു ഭാഷക്കാർ മലയാളം പഠിക്കാൻ ഇച്ചിരി പാടാണ് അവർ മലയാളം പറയാൻ ശ്രമിക്കുമ്പോൾ തന്നെ മലയാളത്തിൽ പല പ്രശ്നങ്ങളും വരുന്നുണ്ട് ചില വാക്കുകൾ ഴ ഞ പോലെയുള്ള വാക്കുകൾ അവരുടെ വായിൽ വഴങ്ങാതെയും തെറ്റിയും ഒക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ഴ യ്ക്ക് പകരം റ എന്ന് പറയുന്നവരുണ്ട് അങ്ങനെ പല രീതിയിലുണ്ട് ഇപ്പം ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകൾക്കിടയിൽ നോക്കുകയാണെങ്കിൽ മലയാളം ഒരു മലയാളിക്ക് നമുക്ക് മറ്റേതുഭാഷയും വളരെ അനായാസം കൈകാര്യം ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതുപോലെ തന്നെ ജീവിതത്തിൽ ലോകത്ത് എവിടെ പോയാലും മലയാളി ഉണ്ട് അതുകൊണ്ട് കാരണമെന്ന് പറയുന്നത് നമുക്ക് ഏതൊരു ഭാഷയും എത്രയും വേഗം പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് മറ്റുള്ളവർക്ക് മലയാളം അങ്ങനെ വേഗം പഠിച്ചെടുക്കാൻ പറ്റാത്തതു കൊണ്ടും നമുക്ക് എല്ലാ ഭാഷയും പെട്ടെന്ന് കയ്യിൽ വരുന്നതു കൊണ്ടും നമുക്ക് മറ്റുള്ളവരുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ വളരെ എളുപ്പമാണ് പറയുവാണെങ്കിൽ ഇന്ത്യ സാംസ്ക്കാരിക നിയമത്തിലും ആശയവിനിമയത്തിലും മലയാള ഭാഷ വളരെ വലിയൊരു പങ്കാണ് വഹിക്കുന്നത്